എൻറ്റൊരഭിപ്രായമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലെ ഒരു സേവിങ്സ് മനോഭാവം വളർത്താൻ ഏറ്റവും നല്ലൊരു കാര്യം തന്നെ ഈ അക്കൗണ്ട് എടുക്കുന്നതാണ് കാരണം ഞാൻ എൻ്റെ ഈ അനുഭവത്തിൽനിന്ന് പറയാണെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഞങ്ങളൊരു സെവെൻത്ത് എയ്ത് ആ ടൈമിൽ ഞങ്ങളോട് സ്കൂളീന്ന് പറഞ്ഞായിരുന്നു എല്ലാവരും ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കണം അത് സീറോ ബാലൻസിൽനിന്ന് തുടങ്ങണമെന്നും പറഞ്ഞായിരുന്നു പിന്ന ഞങ്ങൾക്ക് അന്ന് അതിനെപ്പറ്റി ഒന്നും അറിയില്ല വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അതിനിപ്പം എന്താ എടുക്കാലോ എന്ന് പറഞ്ഞ് നമ്മൾ അമ്മയുമായിട്ടപ്പം ഞങ്ങൾ കുട്ടിയായതു കൊണ്ടത് മൈനറായിരുന്നു മേജറായിട്ടില്ലായിരുന്നു കാരണം ഇത്ര വയസ്സിൽ താഴെ വന്നാലേ നമ്മളത് മേജറാകുവൊള്ളൂ പിന്നെ അമ്മേ വീട്ടിലെല്ലാം കൂട്ടി ഞങ്ങൾ അക്കൗണ്ട് എടുക്കാൻ പോയി സീറോ ബാലൻസിൽ തുടങ്ങുകയും ചെയ്തു എന്തിനായിരുന്നു അതിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു ഒരു അക്കൗണ്ട് എടുക്കുന്നത് കൊണ്ട് ഇപ്പോഴത്തതെന്താവുമെന്നും അറിയില്ലായിരുന്നു അമ്മ പറഞ്ഞു അത് നമുക്ക് പൈസയൊക്കെ കൊണ്ട് ഇടാം സേവിങ് ആണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കൗണ്ടിലിട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും അങ്ങനെ ബാങ്കിൽ പോയി നമുക്ക് വിഡ്രോ ചെയ്യാം ബാങ്കിൽ പോയിടാം അങ്ങനെയൊക്കെ ഒരു കാര്യം പറഞ്ഞ് തന്നു അപ്പം പിള്ളാരിൽ കുട്ടികളിൽ അന്നത്തെ ടൈമിലിപ്പം ആ ഒരു ടൈമിൽ സ്കൂളുകളിൽ നിന്ന് പറയുമായിരുന്നു അക്കൗണ്ട് എടുക്കണം വളരെ യൂസ് ആയിട്ടുള്ള അത് അപ്പം ഒരു അക്കൗണ്ട് എടുക്കുന്നതെന്ന് വെറുതെ പറയരുത് അവരോട് അതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും ദോഷങ്ങളെപ്പറ്റീം പറഞ്ഞ് മനസിലാക്കി കൊടുത്താൽ അവൾ അവർ വളർന്ന് വരുമ്പം അവർക്ക് കൂടുതൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റും ഇന്നത്തെ കാലത്ത് ബാങ്കിൽ പോകാതെ തന്നെ നമുക്ക് ഫോണിൽ ഇരുന്നു കൊണ്ട് തന്നെ പലർക്കും പൈസ കൊടുക്കാം പൈസ വാങ്ങാം സെൻഡ് ചെയ്യാം പല സ്ഥാപനങ്ങളിലോട്ട് അയക്കാം പല ബിളുകൾ പേ ചെയ്യാം എന്ത് തന്നെ ആയാലും നമുക്ക് ഒരുപാട് അവൈലബിലിറ്റീസ് സോഴ്സ് ഓഫ് സെൻഡിങ് ഒരുപാട് കാര്യങ്ങൾ അവൈലബിളാണ് അപ്പം അതെല്ലാം തന്നെ നമ്മുടെ ഒരു അക്കൗണ്ട് സേവിങ്സിനെ നമുക്ക് മനസ്സിലാക്കി തന്ന ഒരുപാട് സിറ്റുവേഷൻസുകളാണ് ഒരുപാട് ആപ്പ്ളിക്കേഷനുകളാണ് അപ്പം ഈ അക്കൗണ്ട് ഒരാൾക്ക് ഒരു അക്കൗണ്ട് ഉള്ളതെന്ന് വച്ചാൽ ഏറ്റവും നല്ല കാര്യം തന്നെയാ കാരണം നമ്മുടെ എ ടി എം ആണേലും നമുക്ക് ഒരു അക്കൗണ്ട് നമുക്ക് എ ടി എം കാർഡ് കിട്ടും അതിൽ നമുക്ക് പൈസ ഇടാം പൈസ എടുക്കാം പൈസ ചെക്ക് ചെയ്യാം ട്രാവലിംഗിന് പോകുമ്പം പോലും നമുക്ക് പൈസ കയ്യിലില്ലെങ്കിൽ പോലും അക്കൗണ്ടീന്ന് പൈസ എടുക്കാം അപ്പം സേവിങ്സ് മനോഭാവം വളർത്തുക എന്നൊരു പ്രധാനഘടകം തന്നെയാണ് ഈ അക്കൗണ്ട് എടുക്കുന്നത് കൊണ്ട് നമുക്ക് പിള്ളാരില് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗുണം അവർക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഗുണമെന്ന് വച്ചാൽ സേവിങ്സ് തന്നെയാണ്